എൻ്റെ പ്രദേശത്തുള്ള സാംസ്കാരിക സംഘടനകൾ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ നബിദിനവുമായി ബന്ധപ്പെട്ടുള്ള ക്ലബ്ബുകൾ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ക്ലബ്ബുകൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള സംഘടനകൾ ഇതിൽ സാംസ്കാരികത്തിനു സംസ്കാരത്തിന് പുറത്തുള്ളവരുമായിട്ട് ഞാനിടപഴകാറില്ല കാരണം നമ്മുടെ സംസ്കാരം വിളിച്ചോതുന്ന ക്ലബ്ബുകൾ തന്നെ അധികമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് ഞാനൊരു ചെറിയ ഗ്രാമത്തിലാണ് താമസിക്കുന്നത് ആ ഗ്രാമത്തിൻ്റെതായിട്ടുള്ള ചുറ്റുപാടുകൾക്കുള്ളിൽ നിന്നു ജീവിക്കാനാണ് എനിക്കിഷ്ടം എൻ്റെ സംസ്കാരം എന്താണോ ആ സംസ്കാരത്തിനുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നതാണ് ഞാൻ അതിനായതിനാൽത്തന്നെ സംസ്കാരത്തിന് നിരക്കാത്തതായിട്ടുള്ള ഒരുവിധ ക്ലബ്ബുകളിലോ ഒന്നിലും ഞാൻ നിലനിൽക്കുന്നില്ല എനിക്കതിനോട് താല്പര്യവുമില്ല